ഞങ്ങളുടെ ഈ പ്രദേശത്ത് മാധ്യമങ്ങളുടെ അതിപ്രസരം ഒന്നും ഇല്ല ഒരു ഉൾനാടൻ ഗ്രാമം ഇവിടെ വാർത്ത വാർത്തകൾ അറിയുന്നതിന് ന്യൂസ് പേപ്പറുകളോ അതുപോലെ ന്യൂസ് പേപ്പറുകൾ ആണെങ്കിൽ തന്നെ അതും വളരെ വിരളമായിട്ടാണ് എത്തിപ്പെടുന്നത് എല്ലാ വീടുകളിലും ഒന്നും ന്യൂസ് പേപ്പറ് വരുത്തുന്ന സ്വഭാവം ഒന്നും എല്ലാവർക്കും ഒന്നും ഇല്ല പിന്നെ ടി വിയിലും അങ്ങനെ ഒക്കെയുള്ള വാർത്തകൾ ഒക്കെയാണ് അധികം ആളുകളും കാണുക കണ്ട് വിവരങ്ങൾ അറിയുന്നത് ഇന്ന് നവമാധ്യമ രംഗത്ത് യുവജനങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയാണ് വിവരങ്ങൾ ഒക്കെ അറിയുകയും പുറം നാടുകളിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുക ഒക്കെ ചെയ്യുന്നത് നമുക്ക് മാധ്യമ രംഗം കുറച്ചും കൂടി ശക്തമാകേണ്ട ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവിധങ്ങളായ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായ ഒട്ടനവധി കാര്യങ്ങൾ പുറം നാടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലസ്ഥാന നഗരികളിലേക്ക് ഒക്കെ എത്തേണ്ടതുണ്ട് അതിന് മാധ്യമങ്ങളുടെ ശ്രദ്ധ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഈ പ്രദേശങ്ങളിൽ പതിഞ്ഞാലാണ് സാധിക്കുകയുള്ളു പലപ്പോഴും വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം ആക്രമണം ഈ വക കർഷകരുടെ നിരാശ വന്യമൃഗ ശല്യം കൊണ്ട് കൃഷി നാശം സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികവും ഭരണതരത്തിൽ ഉള്ളവരോ അങ്ങനെ നേതൃനിരയിൽ ഉള്ളവരോ ആരും അറിയാറില്ല അങ്ങനെ വരുന്നത് കൊണ്ട് കർഷകരുടെ ജീവിതം ആണെങ്കിലും ഒത്തിരി ഒത്തിരി നിരാശയിലും സങ്കടത്തിലുമാണ് എല്ലാവർക്കും നീതി ലഭിക്കണം എങ്കിൽ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രദേശത്തേക്ക് കൂടുതൽ കൂടുതൽ മാധ്യമങ്ങൾ സജീവമായി രംഗത്ത് വരണം അങ്ങനെ പ്രദേശത്തിൻ്റെ നന്മ ഓരോ ദിവസവും പ്രദേശം കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് വളരുവാൻ അത് സഹായകമാകും ഒത്തിരി അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ വളർച്ചക്ക് നാടിന് ജനം നിലനിൽപ്പിന് ഒക്കെ ഈ വക കാര്യങ്ങളെല്ലാം വന്യമൃഗങ്ങളുടെ ഉപദ്രവം അതുപോലെ മറ്റ് മധ്യ മയക്ക് മരുന്ന് ഇതുപോലെയുള്ള സാ ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം ഇതെല്ലാം നമ്മുടെ നാടിനെ ഒത്തിരി നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവയ്ക്കെല്ലാം പരിഹാരം കാണുന്നത് മാധ്യമ രംഗത്തുള്ളവർ സജീവമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട അവസരമാണ് എല്ലാവരിൽ നിന്നും എല്ലാവരും എല്ലാവരിൽ നിന്നും അത് നമുക്ക് ഇത് ഒരു നീതിയാണ് കിട്ടേണ്ടത് ഈ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് വന്യമൃഗങ്ങളുടെയും അതുപോലെ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അവരുടെ ആക്രമങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടണം എങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഗെവൺമെൻറ്റ് തലത്തിൽ സജീവമായിട്ട് ഉണ്ടാകണം വേണ്ട എല്ലാ വിവരങ്ങളും യധാ സമയവും ഭരണതലത്തിൽ എത്തിക്കുന്നതിന് മാധ്യമ പ്രവർത്തകരുടെ ഉണർന്നുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യ അത്യന്താപേക്ഷിതമാണ്